ഹലോ രാമചന്ദ്രനാണോ നമസ്കാരം ഞാൻ ദേവനാണ് സംസാരിക്കുന്നത് അച്ഛൻ മരിച്ച വിവരം ഞാൻ ഈ ഇടയ്ക്ക് അറിഞ്ഞത് പുറത്തേക്ക് ഒരു ജോലി ആവശ്യത്തിനുവേണ്ടി ബോംബെവരെ പോകേണ്ടതുകൊണ്ടെനിക്ക് വരാൻ പറ്റിയില്ല ക്ഷമിക്കണം അച്ഛൻ എനിക്ക് വളരെ പ്രീയപ്പെട്ടൊരാളായിരുന്നു എന്നോട് അന്വേഷിച്ചപ്പോൾ നാട്ടുകാർ പറഞ്ഞു ഹാർട്ട് അറ്റാക്ക് ആയിരുന്നെന്ന് എൻ്റെ അനുശോചനങ്ങൾ നിങ്ങളെന്തുകൊണ്ടും പേടിക്കേണ്ട എന്താവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്കെന്നെ സമീപിക്കാം നിങ്ങൾ പഞ്ചായത്തിലെ ഫോർമാലിറ്റീസെല്ലാം തീർത്തതാണോ പഞ്ചായത്തിൽ നിന്ന് മരണ സർട്ടിഫിക്കേറ്റും ബാക്കിയുള്ള സർട്ടിഫിക്കേറ്റും എല്ലാം മേടിച്ചാണോ എന്തെങ്കിലും ഒരാവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി നമുക്ക് രണ്ടു പേർക്കും ഒരുമിച്ചു തന്നെ അന്വേഷിക്കാം എന്താവശ്യത്തിനും ഞാൻ കൂടെയുണ്ട്